ഹലോ ഇത് സൽക്കാര റെസ്റ്റോറന്റ് അത്താണി അല്ലേ ഓക്കെ ഞാൻ വിളിക്കുന്നത് തുരുത്തശ്ശേരിരിയില്നിന്നാണ് മുകുന്ദപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഇന്ന് ഓപ്പണിങ് ആണല്ലേ വർക്കിംഗ് ആണല്ലേ അതെ അതെ ഓക്കെ അപ്പോള് ഇന്ന് വൈകിട്ടേത്തേക്ക് ഞങ്ങള്ക്ക് കുറച്ച് ഫുഡ് ഓഡർ ചെയ്യാനായിട്ടായിരുന്നു അതെ ആ ഒരു ഫോർ ചിക്കൻ ബിരിയാണി രണ്ട് ഫ്രൈഡ് റൈസ് വൺ ചില്ലി ചിക്കൻ ആ ഫോർ പിന്നെ ബാക്കി സിക്സ് പൈനാപ്പിൾ ജ്യൂസ് ആ ഇത് അതെ അ അപ്പോള് എങ്ങനെയാണ് ക്യാഷ് നമ്മൾക്ക് ഹോം ഡെലിവറിയുണ്ടോ അതോ നമ്മള് വന്ന് പിക്ക് ചെയ്യണോ ഓക്കെ ഓക്കെ ഓക്കെ ഹോം ഡെലിവറി ഉണ്ടല്ലേ എക്സ്ട്രാ ഡെലിവറി ചാർജ് ഉണ്ടോ ഓക്കെ അപ്പോള് ക്യാഷ് എങ്ങനെയാണ് നമ്മളിപ്പോള് അഡ്വാൻസ് എന്തെങ്കിലും ചെയ്യണോ ജി പേ ചെയ്യണോ അതോ ക്യാഷ് ഓൺ ഡെലിവറി മതിയോ ഓക്കെ ഓക്കെ അപ്പോള് നമ്മള് ജി പേ ചെയ്തേക്കാം എമൗണ്ട് എത്രയാണ് ബില് എത്രയാണ് എന്നുള്ളത് ഒന്ന് പറയാമായിരുന്നു എങ്കിൽ നല്ലതായിരുന്നു ഓക്കെ തൗസൻഡ് എയിറ്റ് ഹൻഡ്രഡ് ഓക്കെ അപ്പോള് ബില് നമുക്ക് ഒന്ന് വാട്സ്ആപ്പ് ചെയ്തേക്കാമോ അ ശരി ശരി നമുക്ക് വൈകുന്നേരം ഒരു ആറ് മണിക്ക് വേണം കെട്ടോ അതിനുള്ളിൽ ഇവിടെ എത്തിക്കണം ഓക്കെ ആ താങ്ക് യൂ താങ്ക് യൂ താങ്ക് യൂ സോ മച്ച്